എൻ്റെ വീട്ടിൽ രണ്ട് തരം വളർത്തുകോഴികളുണ്ട് ഗ്രാമലക്ഷ്മിയും കരിങ്കോഴിയും ഇതിൽ നിന്ന് ധാരാളം മുട്ടകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇത് അതുകൊണ്ട് എൻ്റെ സാമ്പത്തിക മേഖല വളരെ ഉയർന്നതാണ് ധാരാളം കോഴികൾ ഞാൻ മുട്ട വച്ച് ഇൻക്യുബേറ്ററുപയോഗിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ച് വിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആഹാരത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബാക്കി വരുന്ന വസ്തുക്കൾ മുഴുവൻ ഇവർക്ക് കൊടുക്കുകയും ഇവര് എനിക്ക് നല്ല മുട്ട തരുകയും ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ഭക്ഷണ സാധനങ്ങളൊന്നും വേസ്റ്റായി പോവാതെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് മാത്രമല്ല കോഴികളുടെ കാഷ്ടം പിന്നെ കോഴി മുട്ട എനിക്ക് വേണ്ടുന്ന ഇറച്ചി എല്ലാം ഈ കോഴികൾ വളർത്തുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട് കൃഷിയിലും കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വളം എനിക്ക് ഈ കോഴികളിൽ നിന്ന് ലഭിക്കുന്നു വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന വേസ്റ്റുകള് വീട്ടുമു അടുക്കള ഭാഗത്തുണ്ടാകുന്ന വേസ്റ്റുകള് ഇതെല്ലം ഈ കോഴി കൊത്തി തിന്ന് അവിടെ എല്ലാം വൃത്തിയാക്കി വെക്കുന്നു മാത്രമല്ല ധാരാളം കോഴികളുള്ളത് കൊണ്ട് എനിക്ക് അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നതിനും അവരോട് സംവദിക്കുന്നതിനും അവരുടെ കൂടെ ഇരുന്ന് കുറേ സമയം ചിലവഴിക്കുന്നതിനും നല്ല ഇഷ്ടമാണ് കോഴികളെ അവരുടെ ഈ ശബ്ദവും നമ്മളെ വിളിച്ചുണർത്തുന്ന ശീലവും എല്ലാം നല്ല രസമാണ് ബിസ് ധാരാളം കോഴികുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ദിവസത്തിലെ പകുതി സമയം അവർക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ധാരാളം മുട്ടകൾ കിട്ടുന്നുണ്ട് കോഴയിറച്ചി ശുദ്ധമായ കോഴിയിറച്ചി എനിക്ക് ഉപയോഗിക്കാൻ പറ്റും അതേസമയം നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന കോഴികളാവട്ടെ അത് ഹോർമോണുകൾ കുത്തി വച്ചിട്ടും യൂറിയ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഭക്ഷണരീ ഭക്ഷണങ്ങൾ അവരെ കൊണ്ട് കഴിപ്പിച്ച് വിഷമേറിയ കോഴികളാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കിട്ടുന്നത് അതേസമയം എൻ ഞാൻ വളർത്തുന്ന കോഴി എനിക്ക് സന്തോഷത്തോടു കൂടി ഭക്ഷണമായി ഉപയോഗിക്കാനും അവയിൽ നിന്ന് കിട്ടുന്ന മുട്ടയും അതേപോലെ ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല ഞാൻ അധികം വരുന്ന മുട്ടകൾ മുഴുവൻ സമൂഹത്തിലേക്ക് ജനങ്ങൾക്കായി കൊടുക്കുന്നു അതിൽ നിന്ന് എനിക്ക് വളരെയധികം ലാഭവും ലഭിക്കുന്നു